സ്മാർട്ട് ഫോണിൻ്റെ വരവോടുകൂടി ജീവിത നിലവാരത്തിൽ വളരെയധികം മെച്ചപ്പെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് സത്യം അതിലൂടെ നമുക്ക് ജീവിത ജീവിത നിലവാരം ഉയർത്താൻ സാധിച്ചിട്ടുണ്ട് പെട്ടെന്നുണ്ടാകുന്ന എന്തെങ്കിലും അപകടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യങ്ങളോ ഒക്കെ നമുക്ക് പെട്ടെന്ന് ഒന്ന് അറിയിക്കാനായാലും അതൊന്ന് അയച്ച് കൊടുക്കാനായാലും എന്തെങ്കിലും പ്രധാനപ്പെട്ട രേഖകൾ എന്തെങ്കിലും എടുക്കാതെ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഒരു ഓഫീസ് ഓഫീസിൽ എന്തെങ്കിലും ഒന്നൊരു കാര്യത്തിന് പോയി എന്തെങ്കിലും ഒന്ന് എടുക്കാൻ മ മറന്നുപോയാൽ അത് നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോണിൽ നിന്ന് എടുത്ത് അല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഫസ്റ്റ് സ്മാർട്ട് ഫോണിൽ അത് ആ ഫോട്ടോസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കാണിക്കാം സർട്ടിഫിക്കറ്റ് ഇപ്പം നമ്മൾ ചെന്ന് വില്ലേജ് ഓഫിസിൽ ചെന്ന് കരം അടയ്ക്കും കരം അടച്ച രസീതോ എന്തെങ്കിലും ഒക്കെ കാർഷികമായ ആവശ്യത്തിന് കൃഷി ഓഫിസിൽ ചെന്നാലും അവിടെ കരം അടച്ച രസീത് വേണം അപ്പം എന്തിനെങ്കിലും നമ്മൾ എന്തെങ്കിലും കാർഷികമായ എന്തെങ്കിലും വിത്തുകൾ മേടിക്കുന്നതിനോ അല്ലെങ്കിൽ തെങ്ങിൻ തൈകൾ വാങ്ങിക്കുന്നതിനോ ഒക്കെ നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ചിലപ്പം നമ്മളോട് കരം അടച്ച രസീത് ചോദിക്കും അപ്പം നമ്മൾ എടുത്ത് എടുത്തിട്ടുണ്ടാവില്ലായിരിക്കും അപ്പം ആ സമയത്ത് നമുക്ക് നമ്മുടെ ഫോണിൽ നിന്ന് ഫോട്ടോസിനകത്തുനിന്ന് നമുക്ക് അതെടുത്ത് അവിടെ കാണിച്ച് അതിൻ്റെ നമ്പർ കാണിച്ച് നമുക്ക് നമ്മുടെ ഏത് ആവശ്യമാണ് അത് നമുക്ക് സാധിക്കാൻ പറ്റുന്നതാണ് അതുപോലെ കുട്ടികളുടെ കാര്യം ആണെങ്കിലും ഇപ്പോൾ സ്കൂളിലേക്ക് എന്തെങ്കിലും ഒന്ന് മാർക്ക് ലിസ്റ്റ് എന്തെങ്കിലും ഒന്ന് അയച്ച് കൊടുക്കാനാണെങ്കിൽ എന്തെങ്കിലും അവരുടെ വിദ്യാഭ്യാസം മുന്നോട്ടുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇപ്പം നമ്മളെ വീട്ടിലാണെങ്കിൽ എങ്കിൽ വേറെ എവിടേയെങ്കിലും ആണെങ്കിൽ തന്നെ നമുക്ക് അത് അവർക്ക് പെട്ടെന്ന് തന്നെ ഫോണിലൂടെ അയച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് ഒരു ബാങ്കിൽ ചെന്നാലും ബാങ്ക് അക്കൗണ്ട് അക്കൗണ്ടുമായിട്ട് അക്കൗണ്ട് നമ്പർ എന്തെങ്കിലും മറന്നുപോയാൽ തന്നെ ഫോണിൽ അതിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ നമുക്കത് കാണിച്ചാൽ നമ്പർ കാണിച്ച് നമ്മുടെ കാര്യങ്ങൾ ഏത് ആവശ്യത്തിനാണോ നമ്മൾ അവിടെ ചെന്നിരിക്കുന്നത് അത് നമുക്ക് സാധിക്കാൻ പറ്റും അതുപോലെ തന്നെ സ്മാർട്ട് ഫോണുകൾ നമ്മുടെ ജീവിത്തത്തിൻ്റെ ഒരു ഭാഗമായി മാറി മാറിയിരിക്കുകയാണിപ്പോൾ ഒഴിവാ ഒഴിച്ചു കൂടാനാവാത്ത ഒരു കാര്യം ആയിട്ട് സ്മാർട്ട് ഫോൺ മാറിയിട്ടുണ്ട് പല പ്രയോജനങ്ങൾ അതിലൂടെ ഉണ്ട് നമുക്ക് കുറച്ച് കുറച്ച് ദോഷങ്ങളുണ്ടെങ്കിൽ പോലും അത് ഉപയോഗിക്കുന്ന രീതിക്കനുസരിച്ചാവും ആ ദോഷങ്ങളും പക്ഷേ നല്ല രീതിയിലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെ മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യം നമുക്ക് തരുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് സ്മാർട്ട് ഫോണുകളാണ് നമുക്ക് അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ആരെയെങ്കിലും അറിയിക്കണമെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ അറിയിക്കാൻ സാധിക്കും ഇപ്പോൾ എന്തെങ്കിലും ഏതെങ്കിലും ഒരു ദുരന്തം വന്നാൽ തന്നെ നമുക്കത് മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ നമ്മളത് നമുക്ക് നമുക്ക് അനുഭവത്തിലൂടെ ആണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് അറിയിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് സ്മാർട്ട് ഫോണുകളിലൂടെയാണ് സ്മാർട്ട് ഫോണുകൾ വന്നതോടുകൂടി ഇപ്പം നമുക്ക് കിട്ടാത്ത എന്തെങ്കിലും ഒരു സോഴ്സ് ഉണ്ടെങ്കിൽ ഇപ്പം പഠി പഠനകാര്യങ്ങളിലായാലും പഠിപ്പിക്കുന്ന കാര്യത്തിലായാലും എന്തെങ്കിലും ഒരു സോഴ്സസ് കിട്ടട്ട് കിട്ടാതെ വന്നാൽ ഒരു ഒരു പുസ്തകം ഒരു ലൈബ്രറി പോയി നമുക്കാ പുസ്തകം കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് സ്മാർട്ട് ഫോണിൽ യൂട്യൂബിനകത്ത് അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ അടിച്ച് കൊടുത്താൽ നമുക്ക് ആ വിഷയത്തെ കുറിച്ച് വളരെ വാസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് സ്മാ സ്മാർട്ട് ഫോണുകൾ വളരെയധികം മെച്ചപ്പെട്ട സാഹചര്യങ്ങളും മെച്ചപ്പെട്ട ജീവിത നിലവാരവും ഉയർത്തുന്നതിൽ വളരെയധികം സഹായിച്ചിട്ടുണ്ട്